ഹലോ അൽ മദീന റസ്റ്റോറൻറ്റാണോ ആ എൻ്റെ പേര് ജിക്സൺ ഞാൻ പൊറോട്ടയും ബീഫും ഉണ്ടോ ഓക്കേ ഉണ്ടല്ലേ ഈ അൽമദീന റസ്റ്റോറൻറ് തോയ്ക്കാവല്ലേ ഓക്കേ എൻ്റെ ചേട്ടാ എൻ്റെ വീട് തോയ്ക്കാവ് നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരെ സി സി എമ്മിലിൻ്റെ അവിടെ ആയിട്ട് വരും അപ്പം നിങ്ങക്കിത് ഹോം ഡെലിവറി ഉണ്ടൊ ആ ഉണ്ടല്ലേ ആ പൊറോട്ടേം ബീഫോക്കെ എങ്ങനെയാണ് അടിപൊളിയാണോ നിങ്ങളെ നല്ല അഭിപ്രായമല്ലെ എല്ലാവ്രരും പറയുന്നത് ആ നല്ലതാണല്ലേ പിന്നെ വേറെന്തെങ്കിലും ഡിഷസ് അഡീഷണലായിട്ട് വേറെന്തെങ്കിലുമുണ്ടോ എക്സ്ട്രാ ഇറ്റാലിയൻ ലൈക്ക് ഇറ്റാലിയൻ മെക്സിക്കൻ അങ്ങനെ എന്തെങ്കിലും ആ ചൈനീസ് ഉണ്ടല്ലേ അപ്പം നൂഡിൽസാണോ ചൈനീസിൽ വരുന്നത് പൊറോട്ടയും ഇപ്പം എനിക്ക് പൊറോട്ടയും ബീഫും മതി പിന്നെ കുറച്ച് സബോള ഒന്ന് എക്സ്ട്രാ ഇട്ടോളൂ കേട്ടോ പിന്നെ ബീഫാച്ചെങ്കി കുറച്ച് ഗ്രേവി ടൈപ്പാക്കാതെ കുറച്ചു കൂടിം വരട്ടി ആക്കിയെടുക്കുക അതാണ് കുറച്ചു കൂടി അടിപൊളിയാക്കി വച്ചോ പിന്നെ പൊറോട്ടയും ബീഫും സെപ്പറേറ്റ് പാക്ക് ചെയ്യേണ്ട പൊറോട്ടയും പൊറോട്ടേൻ്റെ മേലെ രണ്ട് പൊറോട്ട മതി കേട്ട പൊറോട്ട ഒരെണ്ണം അടീലെക്കാ എന്നിട്ട് അതിൻ്റെ മേലെ ബീഫ് വയ്ക്കുക എന്നിട്ട് വീണ്ടും പൊറോട്ട വച്ചിട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടു വന്നാൽ മതി

എന്നാൽ ഓക്കേ അപ്പം നിങ്ങൾ ഇത് ഓർഡർ ചെയ്തോ എൻ്റെ നമ്പറ് ട്രിപ്പിൾ നയൻ ഫൈവ് ടൂ സെവൻ ഫോർ ത്രീ ഫോർ ഏയ്റ്റ് ഈ നമ്പറിൽ തന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി ഞാനെടുക്കാം ഓക്കേ അപ്പോൾ നിങ്ങൾ എത്തിയിട്ട് വിളിക്ക്